ഉൾനാടൻ പ്രദേശത്തെ പ്രാദേശിക കാർഷിക വ്യവസായത്തെ പിന്താങ്ങാൻ ആയി സ്ഥാപിച്ചിട്ടുള്ള സംരംഭങ്ങളാണ് കെ എച്ച് ഡി പി പച്ചക്കറിച്ചന്ത കന്നുകാലിച്ചന്ത തുടങ്ങിയവയെല്ലാം ഇതിൽ കെ എച്ച് ഡി പിയിൽ ആ പ്രദേശത്തെ കർഷകരെല്ലാം അവർ ഓരോരുത്തരും ഉല്പാദിപ്പിച്ച പച്ചക്കറികളും അവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം കൊണ്ടുവന്ന് വെക്കും അതിൽ ഓരോ പച്ചക്കറികളും വേറെ വേറെ വേർതിരിച്ച് വിൽക്കുകയും ഓരോ വ്യക്തികൾ വന്ന് ലേലം വിളിക്കുകയും ചെയ്യും ഓരോ വ്യക്തികളും ലേലം വിളിച്ചതിനു ശേഷം ആരാണോ കൂടുതൽ പൈസ തരുക അവർക്ക് ഈ സാധനങ്ങൾ വിൽക്കുന്നു അതുപോലെ തന്നെയാണ് പച്ചക്കറിച്ചന്തകൾ കന്നുകാലിച്ചന്തകൾ എല്ലാം കന്നുകാലിച്ചന്തകളിലും ഇതുപോലെ കന്നുകാലികളെ കൊണ്ടുവരികയും അതിനും ഈ പൈസ ലേല തുകയായി ഓരോ കന്നുകാലിക്കും ലേലത്തുകയായി വിളിക്കുകയും അതിൽ ഏറ്റവും കൂടുതൽ പൈസ പൈസ നൽകുന്നവർക്ക് കന്നുകാലിയെ വിൽക്കുകയും ചെയ്യുന്നു പിന്നെ കാർഷികമേള പച്ചക്കറിമേള അങ്ങനെ എല്ലാ സാധനങ്ങളും ഉത്സവങ്ങളോട് അനുബന്ധിച്ച് മേളകൾ വെക്കാറുണ്ട് അതിലെല്ലാം കർഷകർ അവരവർ ഉല്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽപ്പനക്കായി വയ്ക്കുകയും അതെല്ലാം നല്ല രീതിയിൽ വിറ്റു പോകുകയും ചെയ്യാറുണ്ട്